ഞാൻ ഹലോ ചേട്ടാ ഞാന് കുറേനേരമായി ചേട്ടനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ എത്താമെന്നു പറഞ്ഞതല്ലേ എനിക്ക് ഇവിടെ നിന്ന് ഒമ്പത് മണിക്ക് പോയാലാണ് പിന്നെ അത്യാവശ്യ സ്ഥലം ആയതുകൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും കാര്യം കഴിയരുതല്ലോ പത്ത് പതിനൊന്നുമണിയാകുമ്പോഴാണ് ചടങ്ങ് അത്രയും ദൂരം എത്തണ്ടേ ഞാനിവിടെ എത്ര നേരമായി വീട്ടിൽ നിന്ന് കാത്തിരിക്കുന്നു കുന്നമംഗലത്ത് നിൽക്കാ ഞാനിപ്പോഴും ഒരു മണിക്കൂറായി വീട്ടില് നിന്ന് ഒരുങ്ങി ഇറങ്ങി നിൽക്കുന്നു എന്താ വരാന് താമസിക്കുന്നത് കാരണം ഇപ്പം സമയം എത്രയായെന്നു വെച്ചിട്ടാണ് ഇനി ഇപ്പോൾ ഒരു മണിക്കൂറും കൊണ്ട് നമുക്ക് അവിടെ എത്താന് പറ്റില്ലല്ലോ അവരെല്ലാവരും വിളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ വരാനിത്രയും താമസിക്കുന്നത് നിങ്ങൾക്ക് വേഗം വരാന് പറ്റില്ലെങ്കില് വേറെ ഏതെങ്കിലും ഓട്ടോ പറയുവാരുന്നെങ്കിൽ ഞാന് ഓട്ടോ വിളിക്കില്ലായിരുന്നോ ഒന്ന് പറയാമായിരുന്നു ഇത്രയും നേരമായി മറന്നു പോയതാണെങ്കിലും പറ ഒന്ന് വിളിച്ചു പറയാം ഞാന് വിളിച്ചിട്ട് എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല നിങ്ങൾ അതാണ് ഇത്ര നേരമായിട്ടു എന്താ വരാത്തതെന്ന് അറിയാന് വേണ്ടിയിട്ട് ഇതാക്കുന്നു എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു ഇനിയിപ്പം അവിടെ എത്തണ്ടേ വേഗം വരുമായിരുന്നെങ്കിൽ പോകാരുന്നു വേഗം വരൂ ഒരു പതിനഞ്ചു അര മണിക്കൂറിനുള്ളില് വരൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാന് പറ്റില്ലെങ്കില് പറയാമായിരുന്നു ഞാന് വേറെ ഏതെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്യാമായിരുന്നു ഈ എത്ര സമയം മതിയല്ലോ അറേഞ്ച് ചെയ്യാന് നിങ്ങൾ വരാമെന്നു പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്